ഹലോ ബേക്കറിയാണോ ഇവിടെ എനിക്ക് കുറേ അധികം സ്വീറ്റ്സ് ആവശ്യമായിട്ടുണ്ട് ഇപ്പോൾ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സ് ആവശ്യമായിട്ടുണ്ട് ഒരു ബൾക്ക് ഇതു കുറേ ഇതെടുക്കുകയാണെങ്കിൽ നിങ്ങളത് ഉള്ള എമൗണ്ട് കുറച്ച് താരനായിട്ട് പറ്റുമോ നിങ്ങൾക്ക് എനിക്ക് ഇച്ചിരി അധികം ആവശ്യമുള്ളതിനാൽ അങ്ങനെ തരാൻ ഒക്കുമെങ്കിൽ നിങ്ങളുടെ റേയ്റ്റും കാര്യങ്ങളും ഒന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് ഒന്ന് നോക്കാമായിരുന്നു ഒത്തിരി വലിയ ഫംഗ്ഷനായതുകൊണ്ട് അപ്പം ഇച്ചിരി സ്നാക്സും ദോശയും വേണമായിരുന്നു അപ്പോൾ അതിൻ്റെ വിലയും ഒന്നു പറയാമോ പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു